ഹൈക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂപ്രദേശം മലകളാണ് മഞ്ഞു മൂടിയ പർവ്വതങ്ങളാണെങ്കിൽ വളരെ ആകർഷകമായ ഒരു ഘടകമാണെനിക്ക് ഇതിൻ്റെ കൂടെ വന്യജീവികളുടെ യാത്രയും വന്യ ജീവികളുടെ കൂടെ ഒത്തൊരുമയിൽ ഒത്തൊരുമിച്ചുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഹൈക്കിങ്ങിനിടയിൽ അനുഭവിക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ തന്നെ സൂര്യാസ്തമയങ്ങളും സൂര്യോദയങ്ങളും മലമുകളിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവസരമാണ് കിട്ടുന്നത് ഹൈക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കിങ് ഒരിക്കലും മടുക്കത്തില്ല കാരണം നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് കയറാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള മലകളാണ് അധികവും ഉണ്ടാകാറ് ചില സമയങ്ങളിൽ വഴികൾ പോലും ഇല്ലാതെ നേരായി നടക്കാൻ പാക പാകത്തിന് വഴികൾ പോലുമില്ലാതെ ഒരവസ്ഥ എത്തി ചേരാറുണ്ട് പക്ഷെ അത് നമ്മളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് കോംപ്ലക്സ് കോംപ്ലക്സിറ്റീസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നത്